ഹലോ ഇത് ഹാപ്പി വെഡ്ഡിങ്ങ് സെൻ്ററല്ലേ എൻ്റെ പേര് വിപഞ്ചിക ഞാനൊര് ബ്രൈഡാണ് അപ്പോൾ അച്ഛൻ എന്നോട് നിങ്ങളെ സമീപിച്ചാൽ മതിയെന്ന് പറഞ്ഞു അടുത്ത മാസം പതിനാറാണ് വരുന്നത് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് നമ്മള് തീരുമാനിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം ഹൽദി വേണ്ട പാർട്ടി ഡേന്ന് പറഞ്ഞാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ ഉണ്ടുണ്ട് എനിക്ക് പർപ്പിൾ കളറാണ് വേണമെന്നുള്ളത് ആ വെള്ളയും കൂടെ ആയിക്കോട്ടെ പിന്നെ അധികം അലങ്കാരം വേണ്ട ആ പൂവ് എനിക്ക് ശരിയായത് വേണമായിരുന്നു ആ കുഴപ്പമില്ല വില പ്രശ്നം ആ ഉണ്ട് അന്നത്തെ ഡേ കുടുംബക്കാര് മാത്രെ ഉള്ളു അന്നത്തെ ദിവസം ആ ആ ഭക്ഷണം അങ്ങനെ മതി ആ രണ്ടാമത്തെ ദിവസം ചുവപ്പും മഞ്ഞയും കൂടി കലർന്നിട്ടുള്ള ഒരു പേജ് ഇല്ല പ്രത്യേകിച്ചൊന്നും വേണ്ട അത് ബീച്ച് സൈഡിലാണ് ഞാനുദ്ദേശിക്കുന്നത് ഇല്ല വില എത്രയായാലും കുഴപ്പമില്ല ആ ഓക്കെ ആ കുഴപ്പമില്ല നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ആ നാളെ വൈകുന്നേരം അഞ്ചര അങ്ങനെ ആ ശരി ആ ശരിയെന്നാൽ